എടാ നിഖിലേ നീ ഫാമിലിയായിട്ട് ഇൻഷുറൻസ് എടുക്കാനാണോ അതോ നിനക്ക് സിംഗിൾ ഒരു പേഴ്സണ് മാത്രമുള്ള ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണോ ഓ ഫാമിലി ആയിട്ടാണോ അപ്പം നിൻ്റെ വൈഫിൻ്റെ കുട്ടികൾ എത്ര പേരുണ്ടോ അവരുടെ അപ്പം ഫുൾ ഒറ്റ പാക്കേജ് ആയിട്ട് എടുക്കാനാണെങ്കിൽ എത്ര എത്ര രൂപയുടെ കവറേജ് ആ നീ ഉദ്ദേശിക്കുന്നത് ഓ അഞ്ച് ലക്ഷത്തിൻ്റെ ശരി പിന്നെ വേറെ എന്തെങ്കിലും ക്രൈറ്റീരിയാസ് ഉണ്ടോ ഒന്നുമില്ല അപ്പം ഫാമിലി ഇൻഷുറൻസ് ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് ആണ് നിനക്ക് എടുക്കേണ്ടത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒന്ന് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് അതിൽ ഫാമിലി കവറേജ് ഉണ്ട് പിന്നെയുള്ളത് നമ്മടെ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് നമ്മടെ ഇന്ത്യ പോസ്റ്റിൻ്റെ കീഴിൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ഇത് രണ്ടും ആണ് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഞാൻ എടുത്തേക്കുന്നത് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ആണ് അത് നമുക്ക് പല തരത്തിൽ ഉള്ളതുണ്ട് അപ്പം നീ നോക്കിയിട്ട് നിനക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് തെരഞ്ഞെടുക്കാം പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ നിനക്ക് പ്രീമിയം ഇപ്പം കൂടുന്നത് എങ്ങനെ വേണമെങ്കിലും നിനക്ക് ഇയർലിയോ മന്ത്ലിയോ ഹാഫ് ഇയർലിയോ ക്വാർട്ടർലിയോ എങ്ങനെ വേണമെങ്കിലും നിനക്ക് പ്രീമിയം അടയ്ക്കാവുന്നതാണ് ഓക്കെ